ഹലോ ഇതു വിൽട്ടൺ ഹോട്ടൽ അല്ലെ ആ ഞാൻ കുറച്ച് എനിക്ക് കുറച്ചു ഫുഡ് ഐറ്റംസ് വേണമായിരുന്നെ അതു പറയാൻ വേണ്ടിയിട്ടു വിളിച്ചതായിരുന്നെ ആ ഹോം ഡെലിവറിയാണ് അതുതന്നെ ആ ഞാൻ മുക്കം മുക്കത്ത് മറ്റേ ബീവറേജിൻ്റെ അടുത്തായിട്ട് ഉണ്ടാകും ആ ഓക്കേ ഓക്കേ എത്തുമ്പോൾ വിളിച്ചാൽ മതി പിന്നെ നമുക്ക് കുറച്ച് ഇറ്റാലിയൻ ടൈപ്പ് മെക്സിക്കൻ ടൈപ്പ് ചൈനീസ് അങ്ങനത്തെ ഫുഡുകളൊക്കെയാണു വേണ്ടത് ആ ഓക്കേ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ റെഫർ ചെയ്യാൻ എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും റെഫർ ചെയ്യാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ബെറ്റർ കാരണം നമുക്ക് ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് പുള്ളിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെയടുത്ത് ഉള്ളതിൽ അത്യാവശ്യം നല്ല ബെസ്റ്റായിട്ടുള്ള ഐറ്റംസ് നോക്കിയിട്ട് എനിക്ക് പ്രിഫർ ചെയ്തിട്ട് അയച്ചാൽ മതി ബഡ്ജറ്റ് ഒരു വിഷയമല്ല ആ ഓക്കേ ഓക്കേ എന്തായാലും ആ ഉള്ളതിൽ അത്യാവശ്യം നല്ലതു നോക്കിയിട്ടു നിങ്ങൾ ഒരു മൂന്ന് മെമ്പേഴ്സിനു കഴിയ്ക്കാൻ പാകത്തിനുള്ള ഈ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി ആ ഓക്കേ ഓക്കേ ആ ആയിക്കോട്ടെ നിങ്ങൾ കൊടുത്തുവിട്ടോളൂ ഞാൻ പറഞ്ഞില്ലേ മുക്കത്ത് ആ ബീവറേജിന് നിയർ എത്തുമ്പോൾ എന്നെ ഒന്നു വിളിച്ചാൽ മതി ആയിക്കോട്ടെ ഓക്കെ താങ്ക്യൂ